ഞങ്ങളുടെ ഗ്രാമത്തിൽ തർക്കങ്ങൾ ഉണ്ടാകുന്നത് ഓരോ കുടുംബത്തിലും അവരവർ തന്നെയാണ് ചിലപ്പോൾ പരിഹരിക്കുന്നത് പുറമേന്ന് അധികം ആൾക്കാരുണ്ടെങ്കിൽ ഭയങ്കര ശല്യം ആവുമ്പോഴ്ത്തേക്കിനും പോലീസും അങ്ങനെയുള്ള കാര്യങ്ങളെ ഒക്കെ വിളിച്ച് ഏർപ്പെടുത്തും അല്ലാത്ത വിധത്തിൽ വരുമ്പോഴ്ത്തേക്കും കുടുംബത്തിലുള്ള അച്ഛനും അമ്മയും തമ്മിലുള്ള തർക്കങ്ങൾ ആ മക്കൾ ഇടപെട്ടും അങ്ങനെയൊക്കെ ആണ് സാധാരണയായിട്ട് പരിഹരിക്കാറുള്ളത് അല്ലെങ്കിൽ ആർടെലും ഭാഗത്തുന്ന് വന്ന തെറ്റാണെന്ന് അത് ചൂണ്ടി കാണിച്ചിട്ട് ആ ഭാഗത്ത് തെറ്റുകൾ തിരുത്തിയാണ് എല്ലായിടത്തും ചെയ്യാർ ഞങ്ങളുടെ ഗ്രാമങ്ങളിലൊക്കെ അങ്ങനാണ് ചില ടൈമിൽ ചെയ്യാറൊക്കെ ഉള്ളത് അല്ലെങ്കിൽ വെളിയിൽ നിന്നുള്ള പഞ്ചായത്ത് മെമ്പറും അങ്ങനെ ആരേലൊക്കെ വിളിക്കും അല്ലേൽ അയൽവക്കംകാർ വീട്ടുകാരൊക്കെ വന്ന് ചോദിക്കും എന്താണ് ബഹളം ഉണ്ടാവുന്ന കാര്യം അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ആരുടെ ഭാഗത്താണ് തെറ്റ് അല്ലേ അവിടുത്തെ ഒരു ചേച്ചി വന്ന് വീട്ടിൽ വന്ന് കാര്യങ്ങളൊക്കെ പറയുന്നു മക്കളൊക്കെ ഉള്ളതല്ലേ വളരുന്നതല്ലേ പഠിച്ച് വളരുന്നതല്ലേ അപ്പം നിങ്ങൾ തുടങ്ങിയ എന്നാൽ ചെയ്യുന്നൊക്കെ അങ്ങനെ ഓരോ കാര്യങ്ങളും ചോദിച്ച് ചോദിച്ച് വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കയാണ് സാധാരണ പതിവ് കഴിഞ്ഞ ഇടക്ക് ഉണ്ടായ ഒരു പ്രോബ്ലം പ്രശ്നമെന്ന് വെച്ചാൽ വേറെ ആൾക്കാർ വന്നു ഇവിടെ വന്ന് പ്രശ്നമുണ്ടാക്കി അപ്പം വെളീന്നൊക്കെ പോലീസ്കാരൊക്കെ വന്നായിരുന്നു അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായി പിന്നെ ചില വീടുകളിൽ മദ്യപാനം ഉള്ളതുകൊണ്ട് മദ്യപിച്ചിട്ട് വന്നിട്ട് പിള്ളേരെ തല്ലുകയും വീട്ടിലെ സ്ത്രീകളെ തല്ലുകയും വീട്ടിലെ സാധനങ്ങളൊക്കെ തല്ലിപ്പൊട്ടിക്കയും അങ്ങനൊക്കെ ചെയ്യാറൊക്കെ ഉണ്ട് അതിന് പുറമെ അപ്പോഴ്ത്തേക്കിനും അങ്ങനുള്ള കാര്യങ്ങൾ വരുമ്പോഴ്ത്തേക്കിനും പോലീസിനെ വിളിക്കും കാരണം മദ്യപിച്ചിട്ട് വരുന്ന കൊണ്ട് പോലീസിനെ വിളിച്ച് അവരായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനുള്ള കാര്യങ്ങളിലോട്ടൊക്കെ കടക്കും അപ്പം പോലീസ് വന്ന് ഒന്നെങ്കിൽ പറഞ്ഞ് നോക്കും ഇനി ഇങ്ങനെ ആവർത്തിക്കരുത് ഇനി വരുവാണെങ്കിൽ പോലീസി കൊണ്ട് കേസ് കൊടുക്കണം അങ്ങനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് അങ്ങനൊക്കെ പോകും അത് കഴിഞ്ഞ് പിന്നീടും ഉണ്ടാകുവാണെങ്കിൽ പോലീസ് സ്റ്റേഷനിലോട്ട് കൊണ്ടരാനാണ് അവർ പറയുന്നത് എല്ലാ കാര്യങ്ങളും കോംപ്രമൈസ് ആക്കീട്ടോ പോലീസ് ഇവിടുന്ന് പോവത്തൊള്ളൂ അങ്ങനെ അതിന് പിന്നെ പോലീസ് വരുമ്പോഴ്ത്തേനും ബാക്കിയുള്ള വീട്ട്കാർ മാത്രം ഇവിടെ നിന്നാൽ മതി ബാക്കിയുള്ളവരെല്ലാവരും പൊക്കോളൂന്ന് പറയും അങ്ങനാണ് സാധാരണ ഇവിടെ തർക്കങ്ങളൊക്കെ ഒഴിവാക്കാറുള്ളത് മിക്ക തർക്കങ്ങളും ഒഴിവാവുന്നത് വീട്ടിലുള്ളവർ പരമാവധി കാര്യങ്ങൾ പറയും അല്ലാത്ത പക്ഷം അയലുവക്കക്കാരും ചിലപ്പോൾ വരും അങ്ങനെക്കെയാണ് തർക്കങ്ങളെ ഒഴിവാക്കി വിടുന്നത് തർക്കങ്ങൾ തീർക്കുന്നതും